ഇവിടെ ആരോഗ്യകേന്ദ്രങ്ങളുണ്ട് പിന്നെ ആശാവർക്കർമാർ നമ്മളെ അടുത്തുള്ള ആവശ്യങ്ങൾക്കുള്ള ആശാവർക്കർമാർ വന്ന് നമ്മളെ പിന്നെ കുത്തിവെപ്പിനും എല്ലാം അവരാണ് വന്ന് പറയുക നമ്മളന്നേരം ഇവിടെ അടുത്ത് തന്നെയുണ്ട് ആരോഗ്യകേന്ദ്രം അവിടെ പോയിട്ട് പിന്നെ ഇൻജെക്ഷൻ വെയ്ക്കാനും എല്ലാം അവിടെ പോയാൽ മതി ചെറിയ കുട്ടികളെ അങ്ങനെ മാസത്തിൽ വെക്കുന്ന ഇൻജെക്ഷൻ ഒക്കെ അവിടെ പോയിട്ടാണ് വെക്കുക ഇവിടെ പിന്നെ അടുത്ത് അംഗൻവാടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോയിട്ട് എല്ലാവരും വാക്സിൻ എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് കുട്ടികൾക്കാണെങ്കിലും കുത്തിവെപ്പ് ഒന്നര മാസത്തിലങ്ങനെ മൂന്ന് മാസം അങ്ങനെ കൂടുമ്പോൾ എല്ലാം വയ്ക്കാൻ ഇവിടെ അടുത്തുതന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആശാവർക്കർമാർ വന്നിട്ട് അവർ വന്നു പറഞ്ഞിട്ട് ദിവസം പറഞ്ഞാൽ അവിടെ പോയിട്ട് ചെയ്താൽ മതി